ഹലോ ആ അഞ്ചലിലുള്ള ഉത്തം മഹൽ ഹോട്ടൽ ആണോ ആ അപ്പം എനിക്ക് ഇനി ഇച്ചിരി സാധനങൾ വേണമായിരുന്നേ അപ്പം അതിന് അവിടെ ഉണ്ടാവോ ലഭിക്കുമോ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ ആ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിരിയാണിയും മട്ടൻ കറീയാണ് അപ്പോൾ അത് അവിടെ കിട്ടുമോ ആ ഉ ണ്ടല്ലേ ശരി ശരി ആ ബിരിയാണി ആ ണ്ടെ ബിരിയാണി സാധാ ബിരിയാണി അതിൻറ്റെ കൂടെ ആണ് മട്ടൻ കറി വേണ്ടത് ആ അപ്പോൾ ഈ എങ്ങനെയുണ്ട് അവിടുത്തെ ഫ്രഷ് സാധനങ്ങളൊക്കെയാണോ ആ അത് ശരി ആ ഓക്കേ ഓക്കേ ഓക്കേ ആ നിങ്ങളുടെ പുതിയ റെസ്റ്റോറൻറ്റ് ആയത്കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വേറെയും കടകളൊക്കെ ഒത്തിരി ഉണ്ട് ഇല്ല ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ഓർഡറ് ചെയ്താൽ ഇനി വീട്ടിൽ എത്തിച്ച് തരത്തില്ലെയോ ഓ ഇപ്പം അത് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ വരും ഉം ആ അതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും അല്ലേ

അഞ്ഞൂറ് രൂപയല്ലേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പം ഇത് ഈ മട്ടൻ ബിരിയാണി ഒരാൾക്ക് കഴിക്കാനേ കാണത്തുള്ളോ ഓക്കേ ഓക്കേ ആ ശരി ശരി ആ രണ്ട് പേർക്ക് വയറു നിറയെ കഴിക്കാൻ അതിനോടുള്ള അതിൻറ്റേതായ ബാക്കി സലാഡും പപ്പടവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അച്ചാറും ഒക്കെ ഓക്കേ ഓക്കേ ആ ശരി ശരി ആ അപ്പോൾ നമുക്ക് ഈ സാധനം ചൂടോടെ തന്നെ കിട്ടണം കാരണം അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കും ചൂടോടെ കഴിക്കണം അതാണല്ലോ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ തണുത്ത് പോയിട്ട് കാര്യം ഇല്ല അപ്പോൾ ചൂടോടെ കിട്ടുമല്ലോ കിട്ടും കിട്ടും ആ ശരി ശരി ആ അങ്ങനെയാണങ്കിൽ നമുക്കത് ആ എൻ്റെ അഡ്രസ് എഴുതിക്കോ ആ കുര്യൻ മാത്യു മേലിൽകുന്നേൽ വീട് ആ പയോള റീത്ത് പള്ളി കുന്നുംപുറം തൊണ്ണൂറ്റിനാല് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ്

ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾ തോട്ടംമുക്കിൽ വരുമ്പം എന്നെ വിളിക്കുക ആ വിളിക്കുക അപ്പഴ് ബന്ധപ്പെടും ഞാൻ വഴി പറഞ്ഞു കൊടുക്കാം ഓക്കേ ഓക്കേ ആ ആ മതി മതി കുഴപ്പം ഇല്ല ഇപ്പം പന്ത്രണ്ടേ മുക്കലല്ലേ ആയുള്ളൂ ഒരു ഒന്ന് ഒന്നരക്ക് അകത്ത് എത്തിയാൽ മതി ആ കുഴപ്പം ഇല്ല നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ ഇട്ട് തരാം അതിൽ കുഴപ്പം ഒന്നും ഇല്ല നിങ്ങൾക്ക് ഉള്ള ഈ ഫോൺ നമ്പറിൽ ഇട്ടാൽ മതിയോ ആ അപ്പം ഇതിലോട്ട് ഞാൻ ഗൂഗിൾ പേയ്തേക്കാം ആ ഒരു ഇരുന്നൂറ് രൂപ ഇട്ടേക്കാം ഓക്കേ ബാക്കി വരുമ്പം കൊടുത്തേക്കാം ഇത് ഒന്ന് പ്രത്യേക സാധനം ഫ്രഷ് ആയിരിക്കണം നല്ല സാധനമായിരിക്കണം വില നമുക്ക് വിഷയമേ അല്ല വില വിഷയമേ അല്ല സാധനം നന്നായിരിക്കണം എല്ലാ കാര്യങ്ങളും കാണണം വ്യത്തിയായിരിക്കണം ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ